പുതിയ തലമുറയിലുള്ള ആൾക്കാരോട് നമ്മൾ ഇപ്പം കൃഷിയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതൊരു നാണക്കേടായിട്ടാണ് തോന്നാറുള്ളത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മണ്ണിലിറങ്ങി പണി ചെയ്യണം ഇപ്പം എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും എത്ര വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിലും കൃഷി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികളെങ്കിലും വിഷാംശമില്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് ലഭിക്കും അപ്പോൾ കൃഷി അതൊരു മോശമായ ഒരു ജോലിയാണ് അല്ലെങ്കിൽ അത് തീരെ ഇല്ലാത്തവരാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ട് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെറിയ ചെറിയ പച്ചക്കറികൾ ഇപ്പം പച്ചമുളകായിക്കോട്ടെ തക്കാളി അല്ലെങ്കിൽ വേറെ എന്താണ് പറയുക ഇഞ്ചി പയർ ഇങ്ങിനെ ഉള്ളതെല്ലാം നമ്മുടെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വിഷാംശമില്ലാത്ത പച്ചക്കറി കിട്ടുകയും ചെയ്യും നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നവുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടു പോയി പൈസയും കളയേണ്ടി വരത്തില്ല അപ്പോൾ കൃഷി ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് മോശമായിട്ട് നമുക്കൊന്നും വിചാരിക്കാനായിട്ടില്ല ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഇപ്പം ഒരു അടുക്കള തോട്ടത്തിൻ്റെ അവിടെ ഒരു തക്കാളിയാണെങ്കിലും നിങ്ങൾക്ക് നട്ടു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് വിഷമില്ലാത്ത ഒരു പച്ചക്കറിയെങ്കിലും നമുക്ക് കറി വച്ച് കഴിക്കാൻ പറ്റത്തില്ലേ